പാലക്കാട് ജില്ലയിൽ ആഘോഷിക്കണ ഒരുപാട് സാംസ്കാരിക ഉത്സവങ്ങളും മറ്റ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് അറിയാം നമുക്ക് ഏ വൈ വലിയൊരു ജില്ല ആയത് കൊണ്ട് തന്നെ പല തരത്തിലുള്ള ആൾക്കാർ പല ഭാഷ ഉദ്ദേശി പല മതത്തിൽ മല പല പല ജാതിയിൽ പെട്ട് പെടുന്ന ആൾക്കാരുണ്ട് അപ്പം അവരുടെ അത് അതിൻ്റെതായ മറ്റ് ഉത്സവങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഉത്സവങ്ങളെല്ലാം തന്നെ ആളുകളുടെ ഐക്യത്തിനും അവരുടെ ഒരുമയ്ക്കും ഒക്കെ തന്നെ സഹായിക്കുന്ന അല്ലെങ്കിൽ പല മതത്തിലെ പെടുന്ന ആൾക്കാരുടെ ഒക്കെ തമ്മിലുള്ള അവരുടെ ഐക്യത്തിനും മറ്റും സഹായിക്കുന്നതാണ് ഇപ്പോൾ ഒരു പ്രദേശത്തെന്ന് പറയുമ്പോൾ പല വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഓരോ ഉത്സവം വരുന്ന സമയത്ത് എല്ലാവരെയും ആ ഒരുത്സവത്തിലോട്ട് ഉൾപ്പെടുത്തി അങ്ങനെ ഒരു കാഴ്ചകളാണ് പാലക്കാട് പൊതുവെ കാണാൻ സാധിക്കുക അപ്പോൾ പ്രധാനമായിട്ടും പട്ടാമ്പി നേർച്ച ഒറ്റപ്പാലം നേർച്ച ഉത്സവങ്ങൾ മറ്റ് പള്ളി പെരുന്നാൾ ബക്രീദ് ഇപ്പം നമ്മുടെ ഓണം ഹിന്ദുക്കളുടെ ഓണം വിഷു പിന്നെ ക്രിസ്റ്റിയൻസിൻ്റെ ആയിക്കോട്ടെ നമ്മുടെ ഈ ബക്രീദ് മറ്റു കാര്യങ്ങളും മുസ്ളീംസിൻ്റെ പള്ളി പെരുന്നാളും അതുപോലെ തന്നെ നോമ്പും മറ്റു കാര്യങ്ങളും അങ്ങനെ ഒരുപാടുണ്ട് അങ്ങനെ ഓരോ ആഘോഷങ്ങൾക്കും അതിൻ്റെതായ ഭക്ഷണ രീതികളാണുള്ളത് ചെല ആഘോഷങ്ങൾക്ക് അതിൻ്റെതായ നോൺവെജ്ജും മറ്റു കാര്യങ്ങളുണ്ടാവും ചിലതിനു നമുക്ക് നാടൻ അല്ലെങ്കിൽ സദ്യ എന്ന രീതിയിൽ നമ്മൾ വെജിറ്റേറിയൻ മറ്റു കാര്യങ്ങളാണ് അങ്ങനെ ഓരോ എന്താ പറയുക ഉത്സവങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും അതിൻ്റെതായ ഭക്ഷണ രീതികളാണ് ഇവയെല്ലാം ശരിയ്ക്കും ആ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഐക്യവും മറ്റും നിലനിർത്തുന്നതിനും സഹായിക്കുന്നു